ഹലോ നിങ്ങള് ഇതിപ്പം എവിടെയാണ് എത്ര നേരമായി ഞാൻ നിങ്ങളെ പിന്നെ വിളിച്ചിട്ട് നിങ്ങളിപ്പം വരുന്നു പിന്നെ വരാം ഇപ്പം തന്നെ വന്ന് വന്ന് ഇതുവരെ നിങ്ങളെ നിങ്ങളെ കണ്ടില്ല ഞങ്ങളുടെ സമയത്തിനൊക്കെ ഒരു വിലയില്ലേ നിങ്ങളെന്താ ഈ ഒരോ ഞങ്ങൾക്കൊര് അത്യാവശ്യ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയാണല്ലൊ നിങ്ങളെ വിളിച്ചത് വിളിച്ചപ്പം നിങ്ങളതിങ്ങനെ ഒരു ഉദാസീനത കാണിക്കുന്നത് ശരിയല്ല കേട്ടോ ഏഹ് ഞങ്ങൾക്ക് ഒരു അത്യാവശ്യമായ കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചത് പക്ഷേ നിങ്ങള് ഇപ്പം എന്നോട് പറഞ്ഞിട്ടിപ്പം എത്ര സമയായി ഏകദേശം ഇപ്പം നിങ്ങള് വരാമെന്ന് പറഞ്ഞ സമയം ഇപ്പം അരമണിക്കൂറിപ്പം ലേറ്റ് ആയിട്ടിരിക്കുവാണ് നിങ്ങള് സത്യത്തിലിപ്പം എവിടെ എത്തി മ് എവിടെ നിങ്ങള് എത്തിയിരിക്കുന്നത് നിങ്ങളിപ്പം എവിടെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുവെങ്കില് ഞാൻ എവിടെയാണെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും നിങ്ങൾ ഇപ്പം എവിടെ ആണ് നിങ്ങൾ ഇപ്പം എവിടെ ആണ് എവിടെ കൊടുമൺ കൊടുമൺ എത്തിയോ കൊടുമണ്ണെവിടെ ആഹാ ഹാ പിന്നെ പിക്ക് അപ്പ് ഒക്കെ കിടക്കുന്ന അവിടെയാണോ ആ അവിടെയാണെങ്കിൽ നിങ്ങളവിടെ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ മുമ്പോട്ട് വരിക മുമ്പോട്ട് വരുമ്പോൾ മുമ്പോട്ട് ഏകദേശം ഒരു ഒരു അര കിലോമീറ്റർ മുമ്പോട്ട് വരിക അങ്ങോട്ട് വരുമ്പോൾ പിന്നെ അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഒക്കെ ഉണ്ട് ഒരു വെയിറ്റിംഗ് ഷെഡും ഒക്കെ കാണും അവിടെ നിന്ന് നേരെ നിങ്ങള് അവിടുന്ന് ഇടത്തോട്ട് കാണുന്ന റോട്ടിലോട്ട് കയറുക ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ എം ജി എം എന്ന് പറയുന്ന സ്കൂൾ ഉണ്ട് ആ എം ജി എം എന്ന് പറയുന്ന സ്കൂളിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് വരുമ്പം അവിടൊരു മില്ല് ഉണ്ട് ആ മില്ലിൻ്റ അവിടെ ഉണ്ട് ഞാൻ അവിടെ വന്നാൽ നമുക്ക് കൃത്യമായി കാണാം ഓക്കെ ഉടനെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉടനെ വരിക ഞങ്ങൾക്ക് അത്യാവശ്യമുള്ളത് കൊണ്ടാണ് നിങ്ങളെ വിളിച്ചത് നിങ്ങള് ഉദാസീനത വിചാരിക്കരുത് എത്രയും പെട്ടന്ന് വരിക ഓക്കെ